അതായത് കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അതായത് ചിലവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമുക്ക് ഇപ്പം കൊഴിൻ്റെ അതായത് കോഴിക്കട കാര്യങ്ങളൊക്കെ ഉള്ളവര് ഉണ്ടാകും അങ്ങനെ ഉള്ളവര് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് വൈകുന്നേരം ഉള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ പന്നിക്കൊക്കെ കൊടുക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും അതായത് പന്നിക്ക് അതായത് വൈകുന്നേരം അതായത് പന്നിൻ്റെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാര് വന്നിട്ട് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകും അവര് ഒരു പെട്ടിയിൽ നിറച്ച് വെക്കും അപ്പം അത് വന്നിട്ട് വൈകുന്നേരം ഒരു വണ്ടി വരും അങ്ങനെ ഉള്ള എല്ലാ കടയിലും പോയിട്ട് എടുക്കും ചില ആൾക്കാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അതായത് ഈ വേസ്റ്റ് ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് റോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ട് തട്ടും അപ്പം നമുക്ക് സ്മെൽ ആയിട്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് ചിലവര് മാത്രം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതലും ഇങ്ങനെ ബീഫിൻ്റെ ആണെങ്കിലും ഏത് കടയിലാണെങ്കിലും ഇങ്ങനെ വേസ്റ്റ് ഒക്കെ വരുന്ന കാര്യങ്ങള് വൈകുന്നേരം വണ്ടി വന്നിട്ട് പന്നിൻ്റെ വണ്ടി വന്നിട്ട് എടുക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കിങ്ങനെ വേസ്റ്റ് ഒക്കെ വരും നമുക്ക് ബയോ ഗ്യാസിനായിട്ട് ഉപയോഗിക്കാം അത് നല്ലൊരു ഇതായിരിക്കും ചിലപ്പം പക്ഷെ എല്ലാവരുമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അത് കോഴിൻ്റെ അതായത് കോഴികാട്ടം ഒക്കെ പിന്നെ നമുക്ക് അതായത് വളമായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതും ഉണ്ട് ജൈവ വളമൊക്കെ ആയിട്ട് കോഴിക്കാട്ടം ഒക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട്